ഹലോ ഞാൻ വിളിക്കുന്നത് ഒരു ഞങ്ങളുടെ വീട്ടിലൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് അപ്പം അതിന് വേണ്ടി നമുക്ക് ഒരൂ കുറച്ച് സ്വീറ്റ്സും പിന്നെ നിങ്ങളുടെ കടയിൽ കോക്കനട് ബിസ്ക്കറ്റ് ഉണ്ടോ അ അപ്പം അതും

നമ്മൾ കോക്കനട്ട് ബിസ്ക്കറ്റ് സാദാ ഏതൊക്കെ ടൈപ്പാണ് ഉള്ളത് ആ ഹാ ഹാ ആ ആ ഒരു

ആ നമ്മൾ നമുക്ക് ഒരു പത്ത് മുപ്പത് മുപ്പത് പേരുടെ ആണ് ബർത്ത്ഡേയ്ക്ക് വിളിച്ചിരിക്കുന്നത് അപ്പം അവർക്ക് പറ്റിയ ഇത് മുപ്പത് ഇത് മതി ഇതിങ്ങനെ പായ്ക്കറ്റ് അങ്ങനെ വല്ലതും ആണോ പായ്ക്കറ്റ് ആക്കിത്തരണം ആ അപ്പം ഒരു ഹോൾസെയ്ലെ റേയ്റ്റ് എത്രയാണ് ആ ഓക്കെ ഓക്കെ ഓക്കെ അ ആ ഹാ അ ആ

ആ കോക്കനട്ട് ബിസ്ക്കറ്റ് മാത്രം പോര സ്വീറ്റ്സും വേണം ഒരു പത്ത് മുപ്പതെണ്ണം എല്ലാം മുട്ടായി എല്ലാം മുട്ടായി ഒരു ആ ജിലേബി ലഡ്ഡുവൊക്കെ വേണം അതുപോലെ തന്നെ മുട്ടായികളില്ലെ

ആ നമക്ക് മെയിനായിട്ട് ഇതാണ് വേണ്ടത് സ്വീറ്റ്സും പിന്നെ കോക്കനട്ട് ബിസ്ക്കറ്റുവാണ് മെയ്നായിട്ട് വേണ്ടത് ഉം അപ്പം അത് ആ ഓക്കെ ഓക്കെ അപ്പം ഞാൻ കോണ്ടാക്റ്റ് ചെയ്തേക്കാം ആ ഓക്കെ ഓക്കെ